കോഴികളെ സാധാരണ ബാധിക്കുന്ന രോഗമെന്ന് പറഞ്ഞാൽ കോഴി വസന്ത എന്ന് പറയുന്ന ഒരു അസുഖമാണ് അതിന് കോഴിക്ക് ശക്തമായ പനി ഉണ്ടാകും പിന്നെ അതിൻ്റെ കാഷ്ടം വെള്ളക്കളറിലായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മൾ കൂടുതലാ പിന്നെ അതിൻ്റെ രണ്ട് ചിറകുകളും തൂങ്ങി അത് മരണാവസ്ഥയിലേക്ക് പോകും അപ്പോൾ അത് നിലനിർത്തണമെങ്കിൽ നമ്മൾ നാടൻരീതിയിൽ പറഞ്ഞുകഴിഞ്ഞാൽ അതിന് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി പിന്നെ നവരയില പിന്നെ കീഴാർനെല്ലി ഇത്രയും സാധനങ്ങൾ മഞ്ഞൾ മഞ്ഞളിൻ്റെ ഒരു കഷണവും കൂടെ വെച്ചിട്ട് നല്ലവണ്ണം മിക്സിയിലിട്ട് അടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഓരോ ഡ്രോപ്സ് വീതം രാവിലെയും വൈകിട്ടും കൊടുത്തുകഴിഞ്ഞാൽ കോഴിവസന്ത എന്ന അസുഖത്തിൽ നിന്നും കോഴികളെ രക്ഷപ്പെടുത്തുവാനായിട്ട് കഴിയും പിന്നെ അതിലും നിന്നില്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഇത് മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ അതിനുള്ള മരുന്നുകൾ തരുകയും അത് മുഖാന്തിരം അവരെ രക്ഷപ്പെടുത്തുവാനും കഴിയും